ഹലോ ന്യൂ വൺ റസ്റ്റോറൻറ് അല്ലേ ഞാനിപ്പോൾ അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പം അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് സാധനങ്ങളോ സാധനങ്ങളും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്നത് നോട്ട് ചെയ്തു വയ്ക്കുമോ ആദ്യം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മന്തിയാണ് അതായത് ഒരു ഫുൾ മന്തിയും പിന്നെ ചാ എന്താ പറയുക നമുക്ക് പൂരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇഡലി ദോശ അങ്ങനത്തെ അപ്പം അതിൻ്റെ കൂടെ മന്തീൻ്റെ കൂടെ എനിക്ക് സോസും കൂടെ ആഡ് ചെയ്യണം ഒരു ഫൂ നമുക്ക് വലിയ ഒരു ഒരു ലിറ്ററിൻ്റെ ബോട്ടിലില്ലേ അതോരെണ്ണം വെച്ചാൽ മതി അതാകുമ്പം നമുക്ക് പിന്നെ വാങ്ങുമ്പോൾ യൂസ് ചെയ്യാമല്ലൊ അതുകൊണ്ടാണ് ആ അതെ ആ സോസ് ഒന്ന് വെക്കുക പിന്നെ ചട്നി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഈ ഇഡലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ അങ്ങനെയാണെങ്കിൽ ചട്നി ഒരു രണ്ട് കറിയായിട്ട് എടുത്താൽ മതി ആ ഓക്കേ പിന്നെ നമുക്ക് വെജിറ്റബിൾ ആയിട്ടുള്ളത് പൂരിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അങ്ങനെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതും കൂടി ആ അതെ അതെ എന്നാൽ ഒന്ന് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് എത്തിച്ചാൽ മതി ഓക്കെ ഓക്കെ എന്നാൽ ശരി എന്നാല്